അതെ പറയൂ

എന്താണ് കാരണം ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമായിട്ട് അങ്ങനെ വരില്ല ഓവർ ആയിട്ട് ടെൻഷൻ ഉണ്ടാവുമ്പോഴാണ് ഈ ഉറക്കം പലർക്കും കുറയുന്നത് ആ ദീ അതിപ്പം കാലാവസ്ഥേൻ്റെ വിഷയമാണ് അത് ഇത് സ്ഥിരമായിട്ട് ഉള്ളതാണോ ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഉറക്കം കുറവുണ്ട് അല്ലെങ്കിൽ എത്ര മാസമായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് കുറച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ടാണോ ആ ഈ ഇതിപ്പോൾ അടുത്ത കാലത്താണോ തുടങ്ങിയിട്ടുള്ളത് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളായിട്ടോ ശരീരത്തിൽ വൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടോ വല്ല വേദനകളോ അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ

ആ ആ ഉം ഷുഗറിനൊക്കെ മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണോ ഇല്ല ഷുഗറിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റും ഇതൊക്കെ ചെയ്യാറുണ്ടോ ഡോ ഷുഗറിന് കാണിക്കുന്ന ഡോക്ടർ ഇങ്ങനെ സ്ഥിരമായിട്ട് ഗു മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഓക്കെ ഓക്കെ ഞാൻ മെഡിസിൻ അയച്ചുതരാം കേട്ടോ ഓക്കെ ശരി